പഴയ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സാധാരണ ഒരു സ്വിച്ച് ഫോൺ ആയിരുന്നു അതിൽ ജസ്റ്റ് നമ്മൾ ഒരു സിം ഇട്ടു കോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കോൾ ചെയ്യുകയും ചെയ്യാം മെസ്സേജ് അയക്കുക എസ്എംഎസ് അയക്കുകയും ചെയ്യാം എന്നാൽ ഇപ്പത്തെ സ്മാർട്ഫോണുകളാണ് ഉള്ളത് ഇപ്പൊൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ട് ഐഓസ് ഫോണുകളുണ്ട് അതിൽ ഇപ്പൊൾ ആൻഡ്രോയിഡുകളാണ് നമുക്ക് ഇപ്പൊൾ ടച്ച് സ്ക്രീനാണ് നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ടച്ച് സ്ക്രീൻ നമുക്കു പെട്ടെന്ന് തൊട്ടാൽ മതി എന്താവേണ്ടെന്നു വെച്ചാൽ അതില് തോട്ടാൽ മതി പെട്ടെന്ന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ക്യാമറ പണ്ടത്തെ ഫോണിൽ ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ക്യാമറ ഫോണുകൾ ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറകൾ ഉണ്ട് നമുക്ക് ഓരോ ഓരോ ഫോട്ടോസും നമുക്ക് ഇപ്പൊൾ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളില് ഓരോ ആ ദിവസം ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അയക്കാം നമ്മുടെ ഫോണിൽ എടുത്ത് വെക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അത്പോലെ ഇപ്പൊൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒക്കെ യൂസ് ചെയ്യാം അപ്പ്റ്റൂഡേറ്റ് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്ട്സ്വാപ്പ് ഇതിൽകൂടി പെട്ടെന്ന്കാര്യങ്ങൾ ഒക്കെ അറിയാൻ പറ്റും അത്പോലെ വാട്സ്വാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ നമുക്ക് സന്ദേശങ്ങൾ പെട്ടെന്ന് എല്ലാവരിലേക്കും അയക്കാൻ പറ്റും അതുപോലെതന്നെ നമുക്ക് ഇപ്പോൾ ഉത്സവങ്ങളോ പരിപാടികളോ നടത്തുന്ന സമയത്തു നമുക്ക് ഫേസ്ബുക്ക് വഴി ലൈവ് ഇടാം ലൈവ് ഇട്ടാൽ എല്ലാർക്കും കാണിച്ചു കൊടുക്കാം അപ്പൊൾ നമ്മളുടെ ദൂരെയുള്ളവർക്ക് ഗൾഫിലും ദുബായിൽ ഉള്ളവർക്കുമെല്ലാം നമുക്ക് വീഡിയോ കോൾ ചെയ്യാം ലൈവും കാര്യങ്ങളും വെച്ചാൽ ഇവന്മാർക്ക് ഇവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ കാണാൻ പറ്റും ഇവിടെ എങ്ങനെ എന്താ നടക്കുന്നെ അതേപോലെതന്നെ അവർക്ക് അവിടെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊഴത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ദൂരെയുള്ളവർക്ക് നമുക്ക് മിസ് ചെയ്യില്ല ഇങ്ങനെയുള്ള ഒരിതുണ്ട് ഇപ്പത്തെ സ്മാർട്ട് ഫോണുകള് പിന്നെ നമുക്ക് ഒരുപാട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം അതേപോലെ ഇപ്പോൾ ഫൈവ് ജി ഒക്കെയുണ്ട് ഇൻ്റർനെറ്റിൽ നമുക്ക് ഫൈവ് ജി ഒക്കെയുള്ളതു കൊണ്ട് എത്രയും പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ അഞ്ചു എംബി പെർ സെക്കന്റ് എത്തുമ്പോൾ ഒക്കെ ഡൌൺലോഡ് ചെയ്യാം സിനിമകളൊക്കെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്തു കാണാൻ പറ്റും അതുപോലെ നമ്മുടെ ഫയലുകൾ ഡാറ്റാസ് ഒക്കെ നമ്മുടെ സെർട്ടിഫിക്കേറ്റ് ഒക്കെ ഫോണിൽ തന്നെ കൈകാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്തു എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഫോണിൽ ഒന്ന് ഷെയർ ചെയ്ത് പ്രിന്റ് എടുത്താൽ മതി മറ്റു നമ്മൾ എല്ലാം കൊണ്ട് നടക്കണം ഇപ്പൊൾ അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പിന്നെ പിന്നെന്നു പറയുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഒരു മൂന്ന് ജിബി ഡാറ്റയൊക്കെ ഡെയിലി വേണ്ടി വരും നമുക്ക് ഉപയോഗിക്കാൻ പണ്ടൊക്കെ ഫോണിൽ അപേക്ഷിച്ചു നമുക്ക് ചിലവ് കുറച്ചു കൂടുതൽ ആണ് അത്പോലെ ഫോണിൻ്റെ വിലയും കൂടുതൽ ആണ് പണ്ടത്തെ ആ ഫോണിന് ഒക്കെ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ നല്ലൊരു സ്മാർട്ട് ഫോൺ മേടിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപ പതിനഞ്ചായിരം തൊട്ട് വേണം നല്ലൊരു ക്യാമറ ക്ലാരിറ്റിയും ബാറ്ററി ബാക്കപ്പ് ഉള്ളരു സ്മാർട്ഫോൺ വേടിക്കണമെങ്കിൽ ഒരു പതിനഞ്ചായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ ഒക്കെ വേണം നല്ലൊരു സ്മാർട്ഫോൺ കിട്ടത്തുള്ളൂ നല്ല ക്യാമറ ക്ലാരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നല്ലൊരു വില കൊടുക്കേണ്ടി വരും പിന്നെ നമ്മടെ റീചാർജ് റീചാർജ് നമുക്ക് പഴയ ഫോണിലൊക്കെ ഒരു അമ്പതു രൂപ റീചാർജ് ചെയ്ത് വരണ്ട അത് കഴിയുന്നത് വരെ നമുക്ക് വിളിക്കാം എന്നാ ഇപ്പോന്നു പറഞ്ഞാൽ മാസം ഒരു മുന്നൂറു രൂപ റീചാർജ് ചെയ്യേണ്ടി വരും ഇരുനൂറു രൂപ തൊട്ട് റീചാർജ് പാക്കുകൾ ഉണ്ട് ഇരുനൂറ്റി മുപ്പതു രൂപ തൊട്ട് റീചാർജ് പാക്കുകൾ ഉണ്ട് അപ്പൊ ഒരു രണ്ടു ജിബി മൂന്ന് ജിബി ഡാറ്റ വേണ്ടി വരുന്നത് കൊണ്ട് ഒരു മുന്നൂറു രൂപയ്ക്ക് മുന്നൂറ്റി അമ്പതു രൂപയ്ക്കു നമ്മൾ ഡെയിലി റീചാർജ് ഡെയിലി അല്ല മാസം റീചാർജ് ചെയ്യണം അത്പോലെ

നമ്മൾ ഇപ്പൊ ഡാറ്റ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ദിവസം നമുക്ക് ഇത്ര ലിമിറ്റഡ് ഡാറ്റ തരും അത് ആ ഒരു ദിവസം അവസാനം കഴിയും നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ ഡാറ്റ കഴിഞ്ഞുപോകും പണ്ടത്തെ ഫോണ് അങ്ങനെയല്ല നമ്മൾ എത്ര ഉപയോഗിക്കുന്നുവോ ഉപയോഗിച്ചാൽ മാത്രമേ ആ പൈസ പോകുകയുള്ളു അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെയുണ്ട്